വളരെയേറെ വ്യത്യാസങ്ങളാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ളത് ഉത്തരേന്ത്യയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ വേറെയാണ് അവിടെ ഡ്രസ്സിംഗ് രീതി വേറെയാണ് അവരുടെ ഭാഷ വേറെയാണ് അവരുടെ ഭഷ്ണങ്ങൾ വേറെയാണ് സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവിടുത്തെ ഇതെന്താ പറയുക കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഇവിടുത്തെ ഡ്രസ്സിംങ്ങും ഇവിടുത്തെ ഭാഷയും ഇവിടുത്തെ എന്താ പറയുക ഭക്ഷണരീതി വളരെ വ്യത്യാസങ്ങളുണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവർ കൂടുതലായിട്ടും ചപ്പാത്തി അവര് അതാ ഗോതമ്പ് അങ്ങനത്തെയാണ് സൗത്തിലോട്ട് വരുമ്പോൾ ഇവിടെ ഫുൾ അരിയാണ് ആഹാരം ചോറ് അങ്ങനെ ചോറുമായിട്ട് ബന്ധപ്പെട്ട ആഹാരങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്ന പിന്നെ കലാ കലാപരമായിട്ട് നോക്കുവാണെങ്കിലും വളരെ വ്യത്യാസമുണ്ട് കാലാവസ്ഥയിലും വളരെ വ്യത്യാസമുണ്ട് അങ്ങോട്ട് ഫുള്ളും എന്താ പറയുക കൂടുതലും വെയിൽ വെയിലൊക്കെ ആയിരിക്കും ഇവിടെ മഴയും അങ്ങനുള്ള കാലാവസ്ഥയാണ് നോർത്തിലോട്ട് പോകുമ്പോൾ കാശ്മീർ പോകുമ്പാഴാണ് തണുപ്പ് അനുഭവപ്പെടുന്നുള്ളത്